ഹലോ തേങ്ങ കച്ചവടം ചെയ്യുന്ന ചേട്ടൻ അല്ലേ അതെ ഞാൻ എനിക്ക് കുറച്ച് തേങ്ങ വേണമായിരുന്നു ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വിളിക്കുകയാണ് ആ എനിക്ക് ഒരു എനിക്ക് ഒരുപാട് ഒന്നും വേണ്ട ഒരു ഒര് അഞ്ച് ആറ് എണ്ണം മതി അയ്യോ ചേട്ടാ എനിക്ക് അത്യാവശ്യം ആണ് എനിക്ക് നാലഞ്ച് എണ്ണം മതി ഇങ്ങനെ കിലോ കണക്കിന് എടുക്കാൻ മാത്രം നമുക്ക് ഇവിടെ ആവശ്യം ഒന്നും ഇല്ല നമുക്ക് ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് അപ്പോൾ പായസത്തിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി ആണ് നമുക്ക് നമുക്ക് തേങ്ങ വേണ്ടത് അപ്പോൾ നമുക്ക് കിലോ കണക്കിന് മേടിച്ച് പായസം ഉണ്ടാക്കേണ്ട കാര്യം നമുക്ക് ഇല്ല കുറച്ച് മതി

നിങ്ങൾ നിങ്ങൾ ഒരു തേങ്ങയ്ക്ക് എത്ര രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത് അല്ല ഒരു തേങ്ങയ്ക്ക് എത്ര രൂപ ആണ് അത് എന്താണ് അല്ല എന്നാലും നമ്മൾ ഒരു കിലോ എന്ന് പറയുമ്പോൾ ഒരു കിലോ കണക്കിന് പറയുമ്പോൾ നിങ്ങൾ എത്ര രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപ നമുക്ക് അത്രയും നമുക്ക് ഒരു ഒരു കിലോയ്ക്ക് എത്ര നമുക്ക് ഒരു രണ്ട് മൂന്ന് കിലോ ഇപ്പോൾ വേണമല്ലോ നമുക്ക് ഒര് അഞ്ച് ആറ് കിലോ വേണം അത് വെക്കേ നാട്ടിലെ തെങ്ങ് വിശ്വസിച്ച് വേറെ ഏതെങ്കിലും നോക്കണം ശരി നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അപ്പോൾ എനിക്ക് ഒര് അഞ്ച് തേങ്ങ ആണ് വേണ്ടത് അഞ്ച് തേങ്ങ എന്ന് വരുമ്പോൾ ഇത് എത്ര കിലോ ആവും മൂന്നര കിലോ അല്ല മൂന്നര കിലോയുടെ അപ്പോൾ മൂന്നര കിലോ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ ആവും ആ ഒര് ഇപ്പോൾ ഇത് എത്ര ആവും ആ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ തേങ്ങ എങ്ങനെ ആണ് നിങ്ങൾ പൊതിച്ച് പൊതിച്ച് പൊട്ടിച്ച് ആണോ വരുന്നത് അതോ തേങ്ങ ആയിട്ട് ആണോ വരുന്നത് പൊതിച്ച് വേണം അപ്പോൾ ഈ പൊതിക്കുന്ന ഈ തൊണ്ട് നിങ്ങൾ അല്ലേ എടുക്കുന്നത് അപ്പോൾ തൊണ്ടിൻ്റെ വെയ്റ്റും ആവുമ്പോൾ തെങ്ങിന് ഒരു കിലോയിൽ താഴെ അല്ലേ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒര് കാര്യം ചെയ്യാൻ പറ്റുവോ നമുക്ക് ആ തൊണ്ട് പൊതിച്ചിട്ട് തേങ്ങ തൂക്കി തരാൻ പറ്റുവോ ഓക്കെ അപ്പോൾ ഇത് തേങ്ങ അപ്പോൾ എങ്ങനെ ഡെലിവറി എങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞ് വരുന്നത് ഞങ്ങൾക്ക് തൊണ്ട് വേണ്ട തെങ്ങ് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യാനാണ് തൊണ്ട് ഒക്കെ നിങ്ങൾ എടുത്തോ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ് അല്ലേ പൊളിഞ്ഞിരിക്കുന്നത് അതെ ഈ തൊണ്ട് ഒക്കെ നിങ്ങൾ തന്നെ വെച്ചോ നമുക്ക് വേണ്ട നമുക്ക് തേങ്ങ മാത്രം മതി അപ്പോൾ തേങ്ങയുടെ തേങ്ങ എങ്ങനെയാണ് ഡെലിവറിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ട് തരുവോ അതോ ഞങ്ങൾ അവിടെ വന്ന് എടുക്കണോ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുവോ ഇത് സ്പീഡ് പോസ്റ്റ് വല്ലതും ചെയ്യാൻ പറ്റുവോ അഡീഷണൽ ചാർജ് എന്താണ് എത്ര രൂപ വരും അപ്പോൾ തൊണ്ട് നിങ്ങൾ അല്ലേ എടുക്കുന്നത് അപ്പോൾ തൊണ്ടിൻ്റെ കാശ് കൗണ്ട് ചെയ്ത് നിങ്ങൾ അങ്ങ് എടുത്തുകൂടേ തൊണ്ട് നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞത് അല്ല നമ്മൾ കാര്യം ആയിട്ട് പറഞ്ഞതാണ് തൊണ്ടിന് ഒക്കെ വലിയ ഇപ്പോൾ തൊണ്ടിന് ഒക്കെ എന്താണ് വില തൊണ്ട് ഒക്കെ നമുക്ക് ഇവിടെ ആലപ്പുഴ കൊടുക്കുകയാണെങ്കിൽ കയർ ഉണ്ടാക്കാം ആ നിങ്ങൾ ഈ തൊണ്ടും എടുത്ത് തേങ്ങയും തരത്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആരായി കാശ് കൊടുത്ത് സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനും വയ്യ ഇത് എന്താണ് അയ്യോ ഇപ്പോൾ എന്തായാലും നമ്മൾ തേങ്ങ നിങ്ങളുടെ തേങ്ങ നമുക്ക് വേണ്ട അതെ ശരി ആ മേടിക്കുന്നില്ല